ഒരുപാട് സ്ഥലങ്ങളിലങ്ങനെ പോയിട്ടുണ്ട് ഭർത്താവായിട്ടും ഞങ്ങൾ ഫ്രണ്ട്സായിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പിന്നെ കൂടുതലുവായിട്ട് പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ദുബയിലും സൗദി അറേബ്യയിലാങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഒരാവശ്യങ്ങൾക്കായിട്ടാണ് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ എന്തേ എന്തെങ്കിലൊക്കെ ഓരോ ആവശ്യങ്ങൾ അതായത് പിന്നെ മക്കളുടെ പഠിപ്പിൻ്റെ കാര്യത്തിലായാലും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലായാലും അങ്ങനെ കുറെ കാര്യത്തിനായിട്ടാണ് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നൊന്നു പറഞ്ഞാൽ അവർ ഓരാവശ്യങ്ങൾ ഇങ്ങനെ വരുമ്പോഴ്ത്തേന് കൂടുതലും അങ്ങനത്തെ കൂടുതലും ഓരോ വിദ്യാഭ്യാസത്തിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിനായാലും അല്ലെങ്കിൽ ഓരോ ഓരോനിൻ്റെയും ആവശ്യങ്ങൾക്കായിട്ടാണ് ഞങ്ങൾ കൂടുതലും അവിടെ പോയി കൊണ്ടിരിക്കുന്നത് ദുബൈയിലായാലും സൗദിയിലായാലും ഞങ്ങൾ അങ്ങനെ ഉംറയ്ക്കാണെങ്കിലും അങ്ങനെയുള്ള കുറെ കുറെ രീതിയിലുള്ള ഇതിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു മക്കളുടെ വിദ്യാഭ്യാസത്തിന് മക്കളുടെ ജോബിൻ്റെ ആവശ്യത്തിനായാലും ജോലിയിടെ പ്രശ്നങ്ങൾക്കായിട്ട് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൂടെയൊക്കെ ഞങ്ങൾ പോയി പോയായിരുന്നു ദുബായിലായാലും ഞങ്ങൾ വിസിറ്റിലങ്ങനെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ കുറെ കുറെ എൻജോയ് ഓരോ രാജ്യത്തിലൊക്കെ പോണംന്നൊക്കെ ആഗ്രഹമുണ്ട് കുറെ എൻജോയ്ക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ കുറെ നല്ല നല്ല നല്ല ഓർമ്മകൾ ഓരോ രാജ്യത്തിനകത്തൊക്കെ പോയി നല്ല നല്ല ഓർമ്മകൾ ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്